സ്റ്റാമ്പുകളിൽ ചിലപ്പം കുറെ രാജ്യങ്ങളിലെ ചരിത്ര കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഒക്കെ ആലേഖനം ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പം അത് ശേഖരിക്കുന്നതിലൂടെ ഒരുപാട് രാജ്യങ്ങളുടെ അവരുടെ ചരിത്ര കാ ചരിത്രാതീത കാലങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും നാണയങ്ങൾ നാണയങ്ങളിലാണെങ്കിൽ ചരിത്ര പുരുഷന്മാരും ചരിത്ര സംഭവങ്ങളും ആലേഖനം ചെയ്തിട്ട് നമുക്ക് വരുന്നുമുണ്ട് അ ഈ ഈ വർഷത്തിൽ നിന്ന് ഇന്നത് നടന്നുവെന്ന് നമുക്കത് ഒരു നാണയം നോക്കുമ്പോ മനസ്സിലാവും നാണയത്തിൻ്റെ നിർമ്മാണ രീതികളും വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നു നിർ എന്നൊക്കെ നമുക്ക് ആ നാണയം ശേഖരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും കല്ലുകളാകുമ്പോൾ വി വിവിധ തരത്തിലുള്ള കല്ലുകൾ ഒരുപാട് രൂപാന്തരപ്പെട്ടാണ് വലിയൊരു പാറയിൽ നിന്ന് ചെറിയൊരു ഉരുളൻ കല്ലായി മാറുന്ന രൂപാന്തരണം നമുക്ക് ഒരു കല്ലിൻ്റെ ഓരോ കല്ല് ശേഖരണത്തിൽ നമുക്ക് വ്യത്യസ്തമാ വ്യത്യസ്തമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം